ചേട്ടാ നമസ്കാരം ഞാൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരോർഡറ് തരാൻ വേണ്ടീട്ടെ ഓർഡർ തന്ന സാധനം വീട്ടിലെത്തി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാരുന്നു ഓൺലൈൻ വഴി ആണ് പേയ്മെൻറ്റ് അയച്ചത് അപ്പം അതിൻ്റെ ഓർഡർ കൺഫോം ആയോ ആ പേയ്മെൻറ്റ് കേറീട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഓക്കേ കേറീട്ടുണ്ടങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ സംഭവം അതായത് ഫുഡ്ഡ് ഡെലിവറ് ചെയ്തു കിട്ടിയാൽ ഉപകാരമായിരുന്നു